പെട്രോൾ വില വർധന ഒരു പരിധി വരെ ബാധിച്ചിട്ടിണ്ട് കാരണം നല്ല ഒരുപാട് ടാക്സും എല്ലാം കൂടുമ്പോൾ പെട്രോൾ നല്ല വില കൂടുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് പെട്രോൾ ഉപയോഗിക്കുന്നത് കുറക്കേണ്ട അവസ്ഥയാണിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഒരു പരിധി വരെ നമുക്കത് വന്നു പിന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന ബൈക്കിൻ്റെ മൈലേജ്സ് അങ്ങനെ അനുസരിച്ച് നമുക്ക് ഇരിക്കും നമ്മൾ പെട്രോൾ എത്ര നമ്മൾ കൺസ്യും ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്തായാലും നല്ല ബുദ്ധിമുട്ടാണ് ഏതാണ് പെട്രോൾ വില വർധന പെട്രോൾ വില വർധനയുടെ ഒപ്പം തന്നെ പല സാധനങ്ങൾക്കും വില വർധിക്കുന്നുണ്ട് എല്ലാം അതിനൊരു ഇതാണ് പെട്രോളിൻ്റെ വില നമ്മൾ സാധാരണക്കാരനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം ഡെയ്ലി ജോലിക്ക് പോകുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ പെട്രോൾ അതേപോലെ പഠിക്കുന്നവർക്കൊക്കെ പെട്രോൾ വില കൂടുന്നതിന് അത് ഒരു കഷ്ടപ്പാട് തന്നെയാണ് പിന്നെയുള്ളത് ഇന്ധന പരിസ്ഥിതിക്കാണെങ്കിലും തീർച്ചയായും ഇപ്പോഴത്തെ പൊല്യൂഷൻ എല്ലാം പെട്രോൾകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പൊല്യൂഷനുണ്ട് അത് കാരണമാണ് ഇപ്പോൾ സി എൻ ജി വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ പൊലൂഷൻ കുറയ്ക്കാനായിട്ട് ഹാനികരം കുറയ്ക്കാനായിട്ട് വരുന്നത് പക്ഷെ അവരും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് പെട്രോൾ വാഹനത്തിനും ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് അത് പരിഹരിക്കാനാണ് ഇപ്പോൾ എഥനോൾ മിക്സ് ചെയ്ത പെട്രോളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ എന്തിരുന്നാലും പെട്രോളിൻ്റെ ഒരു ഇത് പെട്രോളിൻ്റെ ഒരു ആഫ്റ്റർ ഇഫെക്ട് നല്ല ഹാനികരമായിട്ടുള്ള ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പരിസ്ഥിതിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ദോഷം ചെയ്യുന്ന ഒന്നാണ് ഇനി അത് മാറ്റം വരും എന്നാണ് പ്രതീക്ഷ അതോടൊപ്പം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പെട്രോളിൻ്റെ വില അതും സാധാരക്കാർക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നതല്ല പെട്രോൾ വില വർധന എൻ്റെ യാത്രയെ ബാധിച്ചിട്ടുണ്ട് പരിസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞപോലെ മൈലേജ് ഉള്ള ബൈക്ക് വാങ്ങുമ്പോൾ അല്ല അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ അത് ഉപയോഗം കുറയ്ക്കാം ഇത്ര കിലോമീറ്റർ നമുക്ക് ഡെയ്ലി നമ്മൾ പോവുമ്പോൾ ഇത്ര രൂപയുടെ എണ്ണ ചിലവാകുയെന്നുള്ളൊരു കണക്ക് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് യാത്ര ഇപ്പം ബൈക്കുകൾ ഉപയോഗിക്കുന്നുള്ളു